ഞാൻ ഓൺലൈനിൽ ഒരു ഡൈനിങ് ടേബിളാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മേലൊരു ഗ്ലാസ് ടോപ്പായിട്ട് വുഡൻ ഇതായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഉദ്ദേശിച്ചത് അപ്പം അതെനിക്ക് ഫസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പാക്കിംഗാണ് അപ്പ അത് മേലെ ഗ്ലാസ് ടോപ്പായത് കൊണ്ട് തന്നെ ഞാൻ ക്രേക്ക് വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ച് വരുവോ എന്നൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതവര് നല്ല രീതിക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് മേലെ തെർമോക്കോൾ വെച്ചിട്ട് ഗ്ലാസ് ആദ്യം പാക്ക് ചെയ്തു പിന്നെ നമ്മൾ ചെയറെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമുക്കത് ഈ ഹാൻഡ് ഹിൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെറ്റീരിയലാണ് അതിനു വുഡ് വുഡ് മെറ്റീരിയലായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ നല്ല മെറ്റീരിയലായിട്ടാണ് അവർ തന്നിട്ടുള്ളത് വുഡിൻ്റതു തന്നെ ചെയറാണെങ്കിലും ടേബിൾ ആണെങ്കിലുമെല്ലാം സെയിം മെറ്റീരിയൽ കൊണ്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യത്തിന് നല്ല വെയിറ്റും പിന്നെ ഗ്ലാസ് ഇരിക്കുന്നതാണെങ്കിലും നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ തന്നെയായിരുന്നു പിന്നെയുള്ളത് ഞാൻ ആറു സീറ്റുള്ള ഡൈനിങ് ടേബിളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെങ്ങിപ്പോൾ ആറ് സീറ്റ് അതിൻ്റെ ടേബിൾ അപ്പം ഇത്രയും ഒരു സ്പേസ് ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെയെങ്കിൽ ആറു പേർക്ക് ഇലയിട്ടിട്ട് നല്ല സൗകര്യത്തോടുകൂടിയും ഭക്ഷണം കഴിക്കാനും പിന്നെ നടുവിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ ഒരു പാത്രത്തിലാക്കി വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് അതിൽ പിന്നെ അതിൻ്റെ കളറാണ് കളർ ഞാൻ ഫോട്ടോയിൽ കണ്ട അതേ കളർ ആയിരിക്കുമോ എന്നെനിക്കൊരു ആദ്യം ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെയെങ്കിൽ സെയിം കളർ ഫോട്ടോയിൽ കണ്ട അതേ കളർ തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ടേബിളിൻ്റതും ചെയറിൻ്റതും സെയിം കളർ തന്നെയാണ് അത് അവർ ചെയ് ചെയ്തിട്ടുള്ളത് പിന്നെയെന്നുവെച്ചാൽ ഒരു സ്ക്വയർ ടൈപ്പാണ് ഞാൻ ഓഡർ ചെയ്തത് അപ്പോൾ സ്ക്വയറിൻ്റെ തന്നെ പ്ലെയിൻ സ്ക്വയർ അല്ല അതിൻ്റെ സൈഡൊക്കെ കേർവ് ചെയ്യ്തിട്ട് നല്ല ഡിസൈൻ ആയിട്ടു തന്നെ അവർ അതു നല്ല വർക്ക് ചെയ്തതാണെങ്കിലും ഓരോ കോർണർ വരെ അവർ നല്ല ഡിസൈൻ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെയെന്നുവെച്ചാൽ സ്പേസ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരാൾക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിലും ഈ ടേബിളിൻ്റെ ഹൈറ്റിനു കണക്കായിട്ടുള്ള ചെയർ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെയെന്നുവെച്ചാൽ ഈ പൈസക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്